പഴയ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതായത് അന്ന് ഫോണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തലമുറയിൽ ഒരു പ്രത്യേക ലോകമാണെന്ന് ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫോൺ ആയി പിന്നെ അന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ ആൾക്കാര് ആയിട്ടുള്ള ആൾക്കാരായിട്ടുള്ള സം അതായത് സംഭാഷണങ്ങളും മാത്രമേ ഉള്ളൂ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൂരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കത്ത് അങ്ങനെയുള്ള ഒരു സാങ്കേതികവിദ്യകളോക്കെയുണ്ട് പിന്നെ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫുള്ള് ഫോണ് ആ ഒരു മയിൻഡായി എല്ലാവരും ഇപ്പം പിന്നെ ഒരു അഞ്ചു വയസ്സുള്ള കുട്ടികള് തൊട്ട് എൺപത് വയസ്സുള്ള വലിയ അപ്പാപ്പന്മാര് വരെ ഫോൺ ഉപയോഗിക്കുന്ന കാലമാണ് അപ്പോൾ ആർക്കും തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും പഠിക്കാൻ അതായത് സംസാരിക്കാനോ അങ്ങനെ ഒന്നിനും സമയമില്ല അങ്ങനെയാണ് ഇപ്പഴത്തെ കാലത്ത് പിന്നെ മധ്യതലമുറ വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് അ മധ്യതലമുറയുടെ ഭാഗം തന്നെയാണ് ഞങ്ങളും ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് ഒരിക്കലും പറയുന്നില്ല ഫോൺ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് അമിതം അമിതം അല്ല എന്നാലും കുറെ ദോഷങ്ങളും ഉണ്ട് ഫോണുപയോഗിക്കുന്നതിനെ കുറിച്ചുള്ള ദോഷങ്ങൾ ഒരുപാട് ഉണ്ട് എനി എനിക്ക് ഏറ്റവും കൂടുതല് എന്താ പറയുക തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ അതായത് സംഭാഷണം നമ്മള് നമ്മൾ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് മെയിൻ പിന്നെ എനിക്കുള്ള ഒരനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ